ആ ഇരിക്ക് ചേട്ടാ ഇരിക്ക് ആ ആ ആ വീട് വയ്ക്കാനല്ലേ ആ ആ ആ ആ എങ്ങനെയാണ് ചേട്ടൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് വീടപ്പോൾ ആ ആ എത്ര സ്ക്വയർ ഫീറ്റിൻ്റെയാണ്

ആ വെട്ടു കല്ലിൽ ആ വെട്ടു കല്ലാണ് വേണ്ടത് അല്ലെ ഇപ്പോൾ നമ്മൾ ഹൈ ബഡ്ജറ്റൊക്കെ ആവുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ വച്ചിട്ടാണ് ഹൈ ബജറ്റുകളാവുമ്പോൾ നമ്മളത് ബേസ് ഒക്കെ ആവുമ്പോൾ ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ്ങ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മുതലുണ്ട് സ്ക്വയർ ഫീറ്റ് ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ പ്ലാൻ നമ്മളുടെ കയ്യിലുണ്ട് ഇതിപ്പോൾ പ്ലാൻ വേറെ നമ്മുടെ ഒരു കസ്റ്റമർ കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഞാനപ്പോൾ ആളുടെ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വന്നിട്ട് അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ വീട് മൊത്തത്തിൽ നമ്മൾ ചെയ്യാനാണോ അതോ ഇന്റീരിയൽ

ആ ആ ആ ആ ആ അപ്പോൾ ഈ താഴെയൊക്കെ എങ്ങനെ ടൈലൊക്കെ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് സാർ ഗ്രാനൈറ്റ് ഇപ്പോൾ ഗ്രാനൈറ്റ് കുഴപ്പമില്ല എന്തായാലും നമ്മൾ ഇത്രയും കാശു മുടക്കിയിട്ട് ചെയ്യുമ്പോൾ അതിന്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യണമല്ലോ ആ ആ ഓ ശെരിയെന്നാൽ നമുക്കെന്നാൽ ഗ്രാനൈറ്റ് തന്നെ നോക്കാം നമുക്ക് ജനലും വാതിലുമൊക്കെ തന്നെ നമുക്ക് മരത്തിൻ്റെ തന്നെ നോക്കാം തേക്ക് ആ ആ ആ തേക്ക് തന്നെ നോക്കാം നമുക്കെന്നാൽ അതു നോക്കാമല്ലോ നമുക്ക് നോക്കാമല്ലോ ആ ആ നമുക്ക് നോക്കാം നോക്കാം അതിൽ നല്ലത് തന്നെ നോക്കാം ആ ഞാൻ കൊണ്ടുവരാം ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്നില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഇല്ല നമ്മുടെ ഒരു ഒരു കസ്റ്റമർ കൊണ്ടുപോയതുകൊണ്ട്

നമ്മളിപ്പോൾ അഡ്വാൻസ് തരികയാണെങ്കിൽ നമ്മൾ മാക്സിമം ഒരു രണ്ട് മാസം രണ്ട് മാസത്തിനുള്ളിൽ അത് നമുക്ക് ചെയ്യാം അത് മതി മതി സാറേ മതി മതി അങ്ങനെയായാലും മതി സാറെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്നാൽ മാപ്പുമായിട്ട് നാളെ വരാം സാറേ ഞാൻ വീട്ടിലോട്ട് വരാം സാറേ ആ കൊണ്ടുവരാം സാറേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നാളെ ആ വഴി ഇറങ്ങുമ്പോൾ അങ്ങനെ അങ്ങോട്ട് വരാം സാറേ

ആ മതി സാറേ നമുക്ക് അതു നമുക്ക് സാർ പറഞ്ഞപോലെ നമുക്ക് വീട്ടിൽ വന്നിട്ട് ഒന്ന് കൃത്യമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക് ആ ആ ഞാൻ വരുമ്പോൾ എന്തായാലും പറയാം എന്നാൽ ഓക്കേ ശരി സാറേ എന്നാൽ ആ ശരി ആ